ഇപ്പം നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സാങ്കേതികവിദ്യ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാങ്കേതികവിദ്യ വളരെ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് കാരണം എന്ന് വച്ചു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യ നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ചു സാങ്കേതിക വിദ്യ എന്നു പറയുമ്പത്തേക്കും അതായത് പിള്ളേർക്ക് അവരുടെ പഠനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും ഈ സാങ്കേതികവിദ്യ അതേ സമയം അവർക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കി അവർക്ക് നോട്ട്സ് എഴുതാനും അല്ലെങ്കിൽ അവർക്ക് ഇപ്പം സംശയമുള്ള കാര്യങ്ങളെ പറ്റി പ്രഗൽഭരായ ടീച്ചർമാരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് എല്ലാം സാങ്കേതികവിദ്യ സഹായിക്കും അതേ സമയം ഈ സാങ്കേതികവിദ്യ തന്നെ പറഞ്ഞ പഠനത്തെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും അത് എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ പഠിക്കാതെ ഇതിൽ മണിക്കൂറുകൾ ചിലവിടുന്ന സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ ഇൻസ്റ്റഗ്രാം റീൽസ് റീൽസെന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്റ്റഗ്രാം റീൽസ് എന്നു പറയുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ അടുത്തതിലോട്ട് വീണ്ടു ഓട്ടോമാറ്റിക്കലി വരവാണ് അവരുടെ സമയം മൊത്തം അതിങ്ങനെ തീരുവാണ് പിന്നെ പിന്നെ എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് ഈ അഡിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പിന്നെ അവർ പഠനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് പിന്നെ അവർക്ക് പഠനത്തോടൊന്നും താൽപര്യമില്ല പിന്നെ അവർക്ക് ഫോണിലെ സൗഹൃദങ്ങളും പിന്നെ ഫോണിലെ സന്തോഷങ്ങളും ഒക്കെ മതി അവർക്ക് വേറൊന്നും വേണ്ട പിന്നെ ആ പിന്നെ അങ്ങനെയുള്ള ഇതിന് ഇതിൽന്ന് കുട്ടികളെ രക്ഷപ്പെെടുത്തുക അല്ലെങ്കിൽ അല്ല അതിൻ്റെ പരിമിത ഫലങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഫോൺ മേടിച്ചു വച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നു പിന്നെ അവർക്ക് കാര്യമായ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നെ പിന്നെ അവർക്ക് പുറത്തെ ആൾക്ക് ഒന്നിനോടും താല്പര്യം കാണില്ല അപ്പം അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് എങ്ങനെ എന്നു വച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ എൻകറേജ് ചെയ്യാം അതായത് മാക്സിമം ഔട്ട്ഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസിൽ ഇൻവോൾവ് ആകാനും ഒക്കെ അവരെ എൻകറേജ് ചെയ്യാം പിന്നെ എൻകറേജ ചെയ്യാം പിന്നെ പിന്നെ അവരെ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം അതൊക്കെയാണ് നമുക്ക് അവരെ ഇതിൻെ പരിമിത ഫലങ്ങളിൽ രക്ഷപെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ